ഞാൻ ഒന്ന് രണ്ട് യോഗ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ യോഗ ക്ലാസ്സുകളിൽ പങ്കെടുത്തതിൽ നിന്നും എനിക്ക് മനസ്സിലായത് നമ്മളവിടെ പോകുന്ന ഒരു സമയം അതായത് ആ സമയം തൊട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നതാണ് യോഗയുടെ ഒരു കാര്യം അല്ലാതെ നമ്മളിപ്പോൾ ഈ യോഗ ക്ലാസ്സിൽ പോയതുകൊണ്ട് നമുക്കൊരു വലിയ കാര്യമുണ്ടാകില്ല കാരണം നമ്മൾ യോഗ ക്ലാസ്സിൽ പോകുന്നതിനു പകരം അവിടെ പോകണമെങ്കിൽ നമുക്കത്രയും ക്യാഷും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ യോഗ ക്ലാസ്സിൽ പോകണമെങ്കിൽ നമുക്കിവിടെ നിന്നു തന്നെ ഒരു കൊറച്ചു കിലോമീറ്ററുണ്ട് അപ്പോൾ അവിടെനിന്നു നമ്മളങ്ങോളം വരെ എത്തണമെങ്കിൽ ഇപ്പോൾ വണ്ടിക്കാണ് പോകുന്നതെങ്കിൽ അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വേസ്റ്റാകും പിന്നെ എണ്ണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സമയ നഷ്ടവും ധന നഷ്ടവും അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലും നല്ലത് നമ്മളൊരു സമയം കണ്ടെത്തി ഇതിനു വേണ്ടി ഉഴിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണം ലാഭിക്കാം നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ ഫ്രീയാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വീട്ടിൽത്തന്നെ ഇതൊരു പരിശീലനമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീട്ടിൽ സ്വന്തം വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സ് തന്നെ തുടങ്ങാം അങ്ങനെയാണെനിക്ക് മനസ്സിലായത് കാരണം നമ്മളതിനു വേണ്ടി സമയം കണ്ടെത്തണം അതായത് ഇപ്പോൾ രാവിലെയാണെങ്കിൽ അതിനു വേണ്ടി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ വീട്ടിൽ തന്നെ അപ്പോൾ നമ്മൾ പുറമെയെവിടെയും പോയിട്ട് നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട ആവശ്യം തന്നെയില്ല